സർക്കാരിൻ്റെ പദ്ധതികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പദ്ധതികളുണ്ട് സർക്കാരിൻ്റെ അതായത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് പിന്നെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വയോധികർക്ക് അതായത് വയോ ജനങ്ങൾക്ക് പിന്നെ പെൻഷൻ കാര്യങ്ങൾ കൊടുക്കും പിന്നെ വിധവ പെൻഷൻ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഗലാംഗ പെൻഷൻ അവർക്കൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയേ ഉണ്ടാവുകയുള്ളു ഒരു ഉപകാരുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്കൊരു ഇതുതന്നെയാണ് അതായത് പിന്നെ അവർക്കൊരു വലിയ ഉപകാരമാണ് അപ്പോൾ വയസ്സായവർക്കൊക്കെ അവർക്ക് അവർക്കവരുടേതായ കാര്യങ്ങൾ ഒക്കെ അതായത് എന്തെങ്കിലും മേടിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാനും പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിഗലാംഗർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരെ ഒന്നും ആരും നോക്കില്ല സർക്കാരിൻ്റെ ഈ ഒരു പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഉപകാരമൊക്കെ ആയിരിക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് അതായത് ഗവൺമെൻ്റ് ഹോസ്പിറ്റലിൽ ഒക്കെ പ്രസവം കഴിയുന്ന സ്ത്രീകൾക്ക് പൈസ കൊടുക്കും പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അംഗനവാടി വഴി അതായത് പ്രധാന മന്ത്രീൻ്റെ പി എം എം പി വൈയെന്നു പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് അതെന്ന് ആറായിരം രൂപ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പദ്ധതികളുണ്ട് സർക്കാരിൻ്റെ ജനങ്ങൾക്ക് ഉപകാരമുള്ളത്